ബെന്യാമിൻ്റെ ആടുജീവിതം എനിക്കിഷ്ടപ്പെട്ടതാണ് അത് ഞാൻ കണ്ടതാണ് എൻ്റെ ദൈവമേ ആ പ്രിത്വിരാജിൻ്റെ ആ മൂന്നുവർഷത്തെ കഷ്ടപ്പാട് പോയി ഗൾഫിൽ പോണമെന്ന് പറഞ്ഞ ആ ഒരു ഉത്സാഹം കാണിച്ചുപോയി അവിടെ ചെന്നിട്ട് ആഹാരവും ഇല്ല വസ്ത്രവും ഇല്ല അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് അടിയും തല്ലു അടിയും കൊണ്ട് അന്ന് ആ പന്നി ആടുകളെ മേയ്ച്ചിങ്ങനെ നടന്ന് നടന്ന് ആ ഡ്രെസ്സുപോലും മാറാൻ പറ്റാത്ത ആ ഒരു അവസ്ഥ ഒരു ഡ്രസ്സ് എത്രയോ വർഷത്തേക്ക് ഇട്ടുകൊണ്ട് നടന്നു ആ അതിലെ ആ മണലാരണ്യത്തിലൂടെ എന്നിട്ട് യാത്ര ചെയ്ത് പോവുന്നതും അതെല്ലാം കാണാനും അതൊക്കെ കണ്ട് നമുക്കത് നമുക്ക് സങ്കടം വരും ആ ഒരു ഇങ്ങനെ നടന്ന് നടന്ന് വെള്ളം കിട്ടാതെയും ആ വലഞ്ഞ് ആ മണലാരണ്യത്തിലൂടെ പോവുന്നതും അവിടെ നിന്ന് രക്ഷപെടാൻ പോവുന്ന ആ ഒരു പോക്കും അവിടെ നിന്ന് വീണ്ടും അവർ തല്ലി വീണ്ടും കൊണ്ടാക്കി ആടുകളെ മേയ്ക്കാൻ ഏർപ്പാടാക്കുന്നതും എന്തുമാത്രം ദുരിതവും ദുരിതം അനുഭവിച്ചു വീട്ടിലുള്ളവരെ വിളിക്കാൻ പറ്റാത്തൊരവസ്ഥ അത് ഒരു വല്ലാത്തൊരു സാഹചര്യം തന്നെയാണത്